കേരളത്തിൽ ഞങ്ങൾ കോട്ടയംകാർ ഏറ്റവും കൂടുതൽ അരി ഭക്ഷണം കഴിക്കുന്നവരാണ് ആ അരി ആഹാരം കഴിക്കുന്നവരാണ് അപ്പം ചോറ് എന്നു പറയുന്നത് സാധാരണ ജനത്തിനെ സംബന്ധിച്ച് രണ്ടു നേരം കഴിക്കുന്നവരാണ് പക്ഷേ ചില പ്രദേശങ്ങളിൽ ഇവൻ കൂടുതലും ഓ രണ്ടിലധികം പ്രാവശ്യം പറഞ്ഞാൽ അരി കൊണ്ടുള്ള മറ്റെന്തെങ്കിലും പലഹാര രൂപത്തിൽ അരി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ചു രാവിലെ ദോശയായിട്ടോ ഇഡ്ഡലിയായിട്ടോ അപ്പം ആയിട്ടോ അങ്ങനെ വിവിധ പലഹാരങ്ങൾ അരി ഉപയോഗിച്ചു കഴിക്കുന്ന അരി ആഹാരമാണ് ഞങ്ങളേറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറ് ഉണ്ടാക്കാനായിട്ടു വളരെ എളുപ്പമാണ് ഒരു വലിയ പാത്രത്തിൽ എത്ര എത്ര മാത്രം ചോറ് നമുക്ക് ഉണ്ടാക്കി എടുക്കണോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പിന്നെ പാത്രം ത്തിൽ വെള്ളം നന്നായിട്ടു തിളപ്പിച്ചെടുക്കാൻ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതേ സമയം അരി നന്നായിട്ടു വൃത്തിയായിട്ടു കഴുകി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുക അതു മെല്ലെ ഇടക്കൊന്നു ഇളക്കി കൊടുക്കണം വെള്ളം തീർന്നിട്ടുണ്ട് എങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ടു നന്നായിട്ടിളക്കി ആ അരി വെന്തു കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാക്കി ശീലമുള്ളവർക്ക് അരിയുടെ വേകുന്ന പാകം അറിയാം വെന്തു കഴിയുമ്പോൾ അതിൽ നിന്നു വെള്ളം ഊറ്റി ഞങ്ങൾ തടക്കിടുന്നെന്നു പറയും തടക്കിട്ടു വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞു കഴിഞ്ഞിട്ടു ചോറ് എടുത്ത് അതാണ് മറ്റു കറികളുമായിട്ട് ഇതു വളരെ പ്രധാനമായിട്ട് പിന്നെ എന്താണ് മീൻ കറിയോ പച്ചക്കറികളോ ഒക്കെ കൂട്ടി ഭക്ഷണമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു സാധനം അരി ആഹാരമാണ് പിന്നെ അരിയുടെ മറ്റു പിന്നെ പലഹാരങ്ങൾ പുട്ടോ ദോശ ഇങ്ങനെ അതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് അത് പാകപ്പെടുത്തുന്നതും അതിൻ്റെ ക് ചേരുവകളും കൂട്ടുകളും എല്ലാം വ്യത്യസ്തമാണ് ചില ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് തലേന്നു വൈകുന്നേരം തന്നെ അതിൻ്റെ മാവു പാകപ്പെടുത്തി പുളി മാവൊഴിച്ച് പാകപ്പെടുത്തി വെച്ചിട്ട് പിറ്റേന്നു രാവിലെ അത് പിന്നെ പൊങ്ങി കിട്ടും മസാല പിന്നെ കൂട്ട് അതായത് മാവു കുഴച്ചു വെച്ചിരിക്കുന്നതു നന്നായിട്ടു പൊങ്ങിയിട്ടിരിക്കും അതു പിന്നീടെടുത്തു നമുക്കു വേണ്ടേ എന്തിനു വേണ്ടിയിട്ടാണ് കുഴച്ചു വെച്ചേ ആ ആ രീതിയിൽ അതുണ്ടാക്കി എടുക്കുന്നു മസാലകളായാലും ഏറ്റവും കൂടുതൽ ഗരം മസാലകൾ മുളക് മല്ലി അങ്ങനെയുള്ള കറിവേപ്പില ഇങ്ങനെയുള്ള പല സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ കോട്ടയംകാർ